സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് ആദ്യമൊക്കെ ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്നത് ഫേസ്ബുക്ക് ആയിരുന്നു പിന്നീട് ഫേസ്ബുക്കിൽ പലതരം വിഷ്വൽസ് അതായത് പ്രായമായവരുടെ സാമീപ്യം കൂടുതലും വന്ന് തുടങ്ങിയപ്പോൾ ഫേസ്ബുക്ക് ബോറടിക്കാൻ തുടങ്ങി പിന്നെ പ്രത്യേകിച്ച് നല്ല കാണാൻ പറ്റിയ കണ്ടെൻസൊന്നും വരാതായപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് പിന്ന ഇൻസ്റ്റഗ്രാം അപ്പം ഇൻസ്റ്റഗ്രാം തുടങ്ങി കുറച്ച് നാള് കഴിഞ്ഞിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞ ആ ഒരു സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറുക ഉണ്ടായി ഇൻസ്റ്റഗ്രാമിൽ ഒരു എൺപതോളം പോസ്റ്റുകളിൽ എൻ്റെ അക്കൗണ്ടിൽ ഒണ്ടാവും അതിൽ പണ്ട് മുതൽ ഇട്ടതാണ് പലത് കുറേ എണ്ണം ഉള്ളതും പിന്നെ കൂടുതലും ഇൻസ്റ്റ യൂസ് ചെയ്യാൻ കാരണംന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം യംഗ്സ്റ്റേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒര് ആപ്പ് ആണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഇൻസ്റ്റയില് പോസ്റ്റുകൾ ഇടാൻ കാരണം പിന്നെ നമുക്ക് ഒര് എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് വരുന്ന ഒരു ആപ്പ് തന്നെയാണ് ഇൻസ്റ്റഗ്രാം റീൽസ് ആയാലും അല്ലാതെ ഫീഡ്സ് ആയാലും പിന്നെ സ്റ്റോവ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫ് കാണിക്കാൻ പറ്റുന്ന ഒരിതുള്ള സ്റ്റോറി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോസ് നമുക്ക് ആൾക്കാരെ കാണിക്കണം കൂടുതൽ ആൾക്കാരെ കാണിക്കണോന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ആയിട്ടും ഇടാൻ പറ്റും പിന്നെ നമുക്ക് ചാറ്റ് ചെയ്യാ അതായത് ഇപ്പം പല പല ആൾക്കാർക്കും വിളിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് അപ്പം അവർക്കൊക്കെ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ഈ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നത് അപ്പം മെസ്സേജ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും പോസ്റ്റ് ഇടാൻ പറ്റുന്ന നമുക്ക് സ്റ്റോറിയിൽ നമ്മുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒര് സോഷ്യൽ മീഡിയ ആയിട്ടാണ് എനിക്ക് ഇൻസ്റ്റഗ്രാം തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇൻസ്റ്റഗ്രാം പ്രിഫർ ചെയ്ത് അതിനകത്ത് കൂടുതൽ പോസ്റ്റുകളും അതിനകത്ത് ഞാൻ കുറച്ച് കൂടെ ആക്റ്റീവ് ആയിട്ട് നിക്കാൻ ശ്രമിക്കാറുള്ളതും അതുകൊണ്ടാണ്